എനിക്ക് വർഷങ്ങളായിട്ട് ഞാനുപയോഗിക്കാറുള്ള പത്രം വർഷങ്ങളായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് ആ പത്രത്തെ എന്ന് പറഞ്ഞാൽ ക്ലായിൻ്റെ വാർത്തകൾ ഇപ്പോഴും സത്യസന്ധമായിരിക്കും നല്ല ക്ലാരിറ്റിയുണ്ട് വാർത്തകൾക്ക് അതിൻ്റെ ഭാഷാശൈലി അത് വളരെ നല്ല ഭാഷാശൈലിയാണ് കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭാഷാശൈലിയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്

പത്രത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ ആ പത്രം ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ വേറെ ഞാൻ സ്വന്തമായിട്ട് ജീവിക്കുമ്പോൾ അവിടെയും ഞാൻ ആ പത്രം തന്നെയാണ് വരുത്തുന്നത് പക്ഷേ ഈ മറ്റ് പത്രങ്ങൾ ഞാൻ വായിച്ചുനോക്കി കഴിഞ്ഞപ്പോൾ മറ്റ് പത്രങ്ങളിൽ നിന്നുള്ള ഒരു വ്യത്യാസം പ്രധാനമായിട്ടും അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ന്യൂസിലെ ആധികാരികതയും അതിൻ്റെ ആ സത്യസന്ധതയും അതുപോലെ ഒപ്പംതന്നെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും പുതിയ വാർത്തകൾ ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ ഞാൻ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ വായിക്കുന്ന പത്രത്തിൽ വന്ന ശേഷം മാത്രമാണ് മറ്റു പല വാർത്തകളും മറ്റു പല പത്ര പത്രങ്ങളിൽ ഞാൻ കണ്ടിരിക്കുന്നത് പിന്നെ അത് അക്ഷരക്കൂട്ട് ഭാഷയുടെ ശുദ്ധി അടുത്തതായിട്ട് അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ പേപ്പറിൻ്റെ ക്ലാരിറ്റി അച്ചടികളിലുള്ള ആ ആ ഒരു തെളിച്ചം അതിൻ്റെ ഒരു വ്യക്തത ഇതെല്ലാം ഒരു എന്താ പറയുന്നത് ഒരു ഒരു ബ്രാൻഡ് ആയിട്ടുള്ള ഒരു പത്രത്തെയാണ് ഞാൻ എപ്പോഴും ഉൾക്കൊള്ളുകയും അല്ലെങ്കിൽ സ്നേഹിക്കുകയും അതിനെ ആ പത്ര അതിനോട് മമത കാണിക്കുകയും ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പത്രത്തിൻ്റെ പേര് ഞാൻ ഈ അവസരത്തിൽ ഞാൻ വെളിപ്പെടുത്തുകയാണ് മലയാള മനോരമ വളരെ വർഷങ്ങളോളം പാരമ്പര്യമുള്ളതും അതിൻ്റെ ഒരു ഒരു ബ്രാൻഡ് നെയിം ഉള്ളത് തന്നെയാണ് അവരതിൻ്റെ ആ ഒരു ഒരു അന്തസ്സും അതിൻ്റെ ഒരു അന്തസ്സും അതിൻ്റെ ആ ഒരു സത്യസന്ധതയും അവർ ഒരു അത് എപ്പോഴും കാത്തുസൂക്ഷിക്കാൻ അവർ അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുണ്ട് ഈ മറ്റു പത്രങ്ങൾ എന്ന് പറയുമ്പോൾ അവർ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റിലെ ഒരു പോരായ്മയാണോ മറ്റെന്തെങ്കിലും വിഷയം കൊണ്ടാണോ എന്നുള്ള അതിൻ്റെ അതിൻ്റെ കാര്യത്തിലെനിക്കൊരു വ്യക്തതയില്ല അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് അറിയത്തും ഇല്ലതാനും പക്ഷേ മനോരമയെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു ആധികാരികത വിളിച്ച് ഓതുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു അന്തസ്സും അതിൻ്റെ ഒരു എന്താത് ബ്രാൻഡ് മൂല്യവും അതൊരു വളരെ വലുത് തന്നെയാണ് ഈ അവസരത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പോൾതന്നെ രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ രണ്ട് പ്രതലങ്ങൾ പോലെയാണ് എനിക്കീ പത്രങ്ങൾ രണ്ട് പത്രങ്ങളെടുത്തു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് നമുക്ക് നല്ല സ്പടിക ഇത് പോലെയും മറ്റ് തെളിഞ്ഞ ആ അതിന് വ്യക്തമായൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒന്ന് തെളിഞ്ഞ വെള്ളവും ഒന്ന് കലങ്ങിയ വെള്ളവും പോലെയാണ് എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന പത്രം അത്രത്തോളം തെളിഞ്ഞ ഒരു അത്ര അത്ര എനിക്കത് വായിക്കുമ്പോൾ അല്ലെൽ അത് കാണുമ്പോൾ എനിക്ക് അത്ര ഒരു ഒരു ഒരു ക്ലാരിറ്റി അത്ര ഒരു വ്യക്തത എൻ്റെ മനസ്സിലേക്ക് കടന്ന് വരികയുണ്ടായി ഞാൻ വായിച്ചിട്ടുള്ള മറ്റ് പത്രങ്ങളെ അപേക്ഷിച്ച് ഈ മനോരമ്മയ്ക്കുള്ളൊരു മഹാത്മ്യം അതുതന്നെയാണ്